കാര്യം പറഞ്ഞില്ലായിരുന്നോ സ്റ്റെയർകേസിലേ ആ അപ്പോൾ അല്ലല്ല ആ അത് അത് അത് വൃത്തിയാക്കുകയും ചെയ്യണം അത് പുത് പുതുതായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാ ആ റേറ്റും കാര്യങ്ങളും പറയണം കാര്യം വെച്ച് കഴഞ്ഞാൽ അത് സെയർകേസിൻ്റെ ഏരിയ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് ഭംഗി ആക്കാനായിട്ടേ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് അപ്പം അത് ഏരിയ വരുന്നത് നമുക്ക് ഒരു രണ്ടു നില വീടിൻ്റെ ആണ് അതിൻ്റെ അത്രയും സ്റ്റെപ്പ് ആ ആ അത് സ്റ്റെയറിൻ്റെ എന്ന് പറയേണ്ട സ്റ്റെയറിന്ന് വരുന്നത് ആ ഫോറ് ഇൻ്റു ഫൈവാ വരുന്നത് ആ അതായത് സ്റ്റെയർ ഓക്കെ ഓക്കെ ഓക്കെ അ അത് നമ്മൾ സ്റ്റെയർകേസിൻ നമുക്ക് സ്റ്റെപ്പില് സ്റ്റെപ്പിൻ്റെ ഇരുപത് ഇരുപത് സ്റ്റെപ്പ് സ്റ്റെപ്പോളം വരുന്നുണ്ടേ സ്റ്റെയർകേസിൻ്റെ പാൽക്കടയിലേക്ക് നമ്മൾ കയറുന്ന ആ സ്റ്റെപ്പുണ്ട് അപ്പം ആ സ്റ്റെപ്പിൽ നമ്മൾ അതിൻ്റെ ആ അതെ ഡിസൈൻ ആ ഡിസൈൻ ചെയ്യണം ആ ആ അത് അത് എന്താ എന്താ നമ്മൾ ഇത് ചെയ്യുന്നത് എന്താ അത് എന്തെങ്കിലും അത് നമ്മൾ വിരിക്കുന്ന എന്താത് അതായത് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പിന് ആ അ പഴയത് പഴയത് പഴയത് നമുക്ക് മാറ്റിയത് പുതിയത് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ അത് ഏത് ഏത് ഏത് ഐറ്റം ഇട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ആ പുതിയ ചെയ്യുക അപ്പം അത് എന്താണ് അതിൻ്റെ ഏത് എന്താ അത് മാറ്റ് പോലത്തെ സാധനമല്ലേ നമുക്ക് മാറ്റ് മാറ്റ് പോലെത്തെ ഇല്ല നമ്മൾ വിരിക്കുന്ന സ്റ്റെപ്പിന് വിരിക്കുന്ന മാറ്റ് പോലുള്ളതും പിന്നെ ഏ ഹലോ അല ആ മാറ്റ് പോലുള്ള സാധനം വിരിച്ചിട്ട് അലങ്കാരത്തിന് നമ്മൾ ഫ്ലവറ് വെക്കുന്ന സ്റ്റാൻഡ് അത് ആ ചെടി പിടിപ്പിക്കുന്നതേ ഉള്ളൂ അപ്പം അപ്പം ഇത് അ ഇത് ഇതിന്റെ റേറ്റും കാര്യം ഒക്കെ എങ്ങനെയാ സ്ക്വയർ ഫീറ്റ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും ബാൽക്കണിയല്ലേ നമ്മൾ ബാൽക്കണിയാകുമ്പഴത്തേക്ക് സ്റ്റെയർകേസ് ഉൾപ്പെടെ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്യേണ്ടേ നമ്മൾ നമ്മൾ ആ ഗാർഡൻ സ്റ്റെയർകേസ് അതും ബാൽക്കണി ചെയ്യണം ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ആ നമ്മളതേക്കുറിച്ച് ആലോചിക്കാം എൻ്റെ അത് അതിൻ്റെ റേറ്റും കാര്യം വന്ന് അളന്നു നോക്കിയിട്ടേ ആ അളന്ന് നോക്കി നമുക്ക് ടോട്ടല് ചെയ്യേണ്ടേ ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ